ഹലോ കുറച്ച് മുൻപേ ഞാൻ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ അതായത് കുറച്ച് ഫുഡ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്വിഗ്ഗിലാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ സംഭവം ഞാൻ എൻ്റെ വീട്ടിലേക്കായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് അതായത് കാപ്പാടിലേക്കാണ് ഓർഡർ ചെയ്തത് അതായത് കാപ്പാടാണെൻ്റെ സ്ഥലം അപ്പം അവിടത്തേക്കാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ കുറച്ച് അതായത് അവിടെത്തന്നെയാണ് അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഇട്ടുകൊടുത്തത് ഞാൻ അവിടത്തേക്കുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു എൻ്റെ ഒരു കസിൻ വന്നപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ കാപ്പാട് തന്നെയാണ് സ്ഥലം അപ്പോൾ വീടിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് അപ്പോൾ ആ ഓർഡർ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചു തരുമോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ആ അപ്പം കുറച്ചും കൂടി ഫുഡ് പിന്നെ കൂടെ കൂടുതൽ വേ വേണം അത് ഞാൻ ഫോണിൽ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇടാം ആ ലൊക്കേഷൻ അയച്ചാൽ പോരെ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചിടാം അപ്പോൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ ആ അത് പറയാൻ വേണ്ടി വിളിച്ചതാണ് ആ ഓക്കേ താങ്ക് യൂ